ഇന്ത്യയിലെ കുറേ ഭാഷകളുള്ള സിനിമകളുണ്ട് മലയാളമുണ്ട് തമിഴുണ്ട് കർണ്ണാടയുണ്ട് മറാഠ കുറേ ഭാഷകൾ സിനിമയുണ്ട് പക്ഷേ ഞാൻ മലയാള സിനിമ മാത്രമാണ് കാണല അതിനാദ്യം കണ്ട ആദ്യം കണ്ട സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പിന്നെ എൻ്റെ പ്രിയ്യപ്പെട്ട നടൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിൻറ്റെ ഏറെക്കുറെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോളത്തത് അധികമൊന്നും കാണാറില്ല പണ്ടുള്ള ബസ് കണ്ടക്ടർ കളിക്കളം ഇങ്ങനെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് ബസ് കണ്ടക്റ്ററൊക്കെ പത്തു പതിനഞ്ച് വട്ടം കണ്ടതാണ് കളിക്കളം കുറേ വട്ടം കണ്ടതാണ് ബസ് കണ്ടക്ടർത്തെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ലൈ ലൈ ലെ ലേയെന്ന പാട്ട് അതെനിക്ക് നല്ല ഇഷ്ടം വരും അത് ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ കളിക്കളത്തിലും ശ്രീനിവാസനും മമ്മൂട്ടിയും ആ ആ സിനിമയും ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പം കാണലില്ലാ

കോമഡീലെ അത് ഞാൻ കുറേവട്ടം കണ്ടതാണ് ആ അത് കണ്ട് ടി വിയിലൊക്കെ വരുമ്പോൾ കുറേ വട്ടം കാണലുണ്ട്